ഇതില് നിങ്ങളേതെങ്കിലും മിഷീൻ വിവർത്തനമോ ഗൂഗിൾ ഉപയോഗിച്ചിട്ടുണ്ടോ പലതരത്തിലും കൃത്യമാണ് ഇതില് ഞാന് ആക്ച്വലി ഞാൻ വിദേശത്താണ് അപ്പോൾ ഞാന് അതിനകത്ത് ഗൂഗിൾ ട്രാൻസിലേറ്റർ അതായത് മിഷീൻ വിവർത്തനം ഉപയോഗിക്കാറുണ്ട് അപ്പോള് ഞാന് അത് നി നിലനിൽക്കുന്ന രാജ്യത്തിൻ്റെ ലാംഗ്വേജിൽ നിന്നും ഇംഗ്ലിഷിലേക്ക് പല അവിടത്തെ ഒഫീഷ്യൽ സർക്കുലറുകളെല്ലാം വരുന്ന അവിടുത്തെ അറബിക് അറബിക് ഇതിലാ ലാംഗ്വേജാണ് സർക്കുലറൊക്കെ വരുക പലപ്പോഴും വരുക അപ്പോള് ആ സർക്കുലറൊക്കെ ട്രാൻസ് ഞാനീ ഗൂഗിൾ ട്രാൻസിലേറ്റർ ഉപയോഗിച്ച് ഞാൻ പലപ്പോഴും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ഫ ട്രാൻസിലേറ്റെയ്ത് ഉപയോഗിക്ക ഉപയോഗിക്കാറു ഉപയോഗിക്കാറുണ്ട് അതെനിക്ക് വളരെ ഉപകാരപ്രദമായിട്ട് എനിക്ക് ഫീ അനുഭവപ്പെടാറുണ്ട് അതോടൊപ്പം തന്നെ ഗൂഗിൾ മാപ്പ് ഞാൻ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ വിദേശത്തും നാട്ടിലാണുമ്പോളും നാട്ടിൽ അവധിക്ക് വരുമ്പോഴൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് വിദേശത്ത് ഗൂഗിൾ മാപ്പിൻ്റെ ഉപയോഗം എനിക്ക് വളരെ ഉപകാരപ്രദമായി എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് ഏത് സ്ഥലത്ത് പോകണേലും ആരെങ്കിലും ഗൂഗിൾ ലൊക്കേഷൻ അയച്ചാല് എനിക്ക് കറക്ട് എത്തിപ്പെടാ എത്തിപ്പെ എത്തി എത്താൻ എനിക്ക് സാധിക്കാറുണ്ട് പക്ഷെ നാട്ടിൽ കേരളത്തിലായിരിക്കുമ്പോളും ഗൂഗിൾ മാപ്പിൻ്റെ ഉപയോഗം എനിക്ക് അത്ര ഒരു സേഫ്റ്റിയായിട്ട് അനുഭവപ്പെടുന്നില്ല കാരണം ഈ റീസെൻറ്റായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ചങ്ങനാശേരിയിൽ തന്നെ ഒരു സ്ഥലത്ത് ഉൾ ഉൾപ്രദേശമായിരുന്നു അപ്പോള് അവിടെ അവരെനിക്ക് അയച്ചുതന്നു ഞാൻ അവിടെ പോകുക അപ്പോഴത്തേക്ക് എനിക്ക് യഥാർത്ഥത്തിൽ ഞാനവിടെ ഫൈനലൈസ് ചെന്ന് ചെന്നു എങ്കില്പ്പോലും ഒരൂ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ ഇപ്പോള് ഞാൻ പല വാർത്തകളിലും ന്യൂസ് മീഡിയയിലൊക്കെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് പലപ്പോഴും ഗൂഗിൾ മാപ്പുപയോഗിച്ച് കേരളത്തില് യാത്ര ചെയ്യുമ്പോള് വെള്ളത്തില് പോയെന്നും അല്ലെങ്കില് ഓരോരുത്തര് വഴിയില്ലാത്തിടത്ത് പോയി നിന്നുമൊക്കെയുള്ള പല വാർത്തകൾ ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോള് അതിന് ഒരുപക്ഷെ കേരളത്തിലെ ഒരുപക്ഷെ ലൊക്കേഷൻസൊക്കെ അത്ര അപ്ഡേറ്റഡ് ആകാത്തതു കൊണ്ടായിരിക്കാം അങ്ങനൊരു അനുഭവം എല്ലാവർക്കും പലർക്കും ഉണ്ടാവ ഉണ്ടാകുന്നത് പക്ഷെ പൊതുവെ ഗൂഗിൾ മാപ്പ് ആണേലും മെഷീൻ വിവർത്തനമാണേലും ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വളരെ ഉപകാരപ്രദമാണ് എന്നുള്ളതാണ് വിദേശത്തെന്തായാലും എനിക്ക് ഇത് ഉപകാരപ്രദമായിട്ട് തന്നെ ഫീലീയ്യുന്നു വളരെ നല്ല രീതിയിൽ ഫീലീയ്യുന്നു ഈവന് ഗൂഗിൾ വിവർത്ത ഗൂഗിൾ ട്രാൻസിലേറ്ററിലെല്ലും ചില കാര്യങ്ങശ്ർ എക്സാക്ട് ഇംഗ്ലീഷ് വേഡ് ചിലപ്പോള് കിട്ടിയെന്നു വരത്തില്ല അതുപോലെ തന്നെ ഇപ്പോള് എൻ്റെ കുട്ടികള് പഠിക്കുന്നവര് അവര് പിന്നെ അവരുടെ ഈ ഈവൻ ഹിന്ദി ചില കാര്യങ്ങള് മനസിലാത്ത മനസിലാകാത്ത കാര്യങ്ങള് അവര് ട്രാൻസിലേറ്റെയ്ത് തരണ്ടെ അതുപോലെ തന്നെ ഫ്രഞ്ച് പഠിക്കുമ്പോള് ഫ്രഞ്ചിനകത്തുനിന്ന് ട്രാൻസിലേറ്റെയ്ത് എടുക്കുന്നുണ്ട് അതൊക്കെ അതില് ഇവരെയൊക്കെ കുട്ടികളാണേലും ഗൂഗിൾ ട്രാൻസിലേറ്ററൊക്കെ ഉപയോഗിക്കുന്നു പക്ഷെ ചില സാഹചര്യങ്ങൾ വളരെ ച് കുറഞ്ഞ ചില സാഹചര്യങ്ങളിൽ മാത്രം ഇതിന് ട്രാൻസിലേഷന് അഥവാ ആക്കുറസി അല്ലെങ്കില് എക്സ യഥാർത്ഥ വേഡ് അവരുദ്ദേശിക്കുന്ന കറക്ട് അർത്ഥമാകുന്ന വേഡ് ഒരുപക്ഷെ കിട്ടാതെ വരുന്നുണ്ടാകാം എങ്കിലും ഒരു ഒരു ഒരു അറുപതു ശതമാനം അല്ലേ എഴുപത് ശതമാനത്തിലെങ്കിലും കൃത്യമാ കൃത്യത പാലിക്കുന്നുണ്ട് എന്നാണ് എഴുപത് ശതമാനത്തിനെങ്കിലും മുകളില് തീർച്ചയായും അങ്ങനെയുള്ള ഒരു ആക്കുറസി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് മനസിലാക്കാ സാധിച്ചിരിക്കുന്നു ഗൂഗിൾ മാപ്പുകളാണേലും വിദേശത്ത് നല്ലൊരു ഏറ്റവും നല്ല രീതിയിലത് ഉപയോഗപ്രദമുണ്ട് അതിനകത്ത് ഒരു ഒരു തെറ്റ് ഒരു സംശയവുമില്ല കേരളത്തിൽ പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തെങ്കിലൊരു മാറ്റങ്ങൾ ചെറിയറിയ തെറ്റുകൾ ഒരുപക്ഷെ അപ്ഡേറ്റ് ആകപ്പെടാത്തതു കൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു